ഞങ്ങളുടെ പ്രദേശത്ത് സാധാരണയായിട്ട് ഇപ്പോൾ പ്രാണികളുടെ കടിയേറ്റാൽ അതായത് ഇപ്പോൾ നമ്മുടെ ഈ കുറച്ച് വിഷമുള്ള പ്രാണികളൊണ്ടല്ലോ തേനീച്ച അല്ലെങ്കിൽ പഴുതാര എന്നിങ്ങനെയുള്ള ജീവികളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മള് സാധാരണയായിട്ട് പെട്ടെന്ന് നമ്മൾ നാട്ട് നാട്ട് വൈദ്യം അതിന് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ കടിയേറ്റ ഉടനെ തന്നെ നമ്മളാ ഭാഗത്ത് മഞ്ഞളും തുളസിയിലയും അരച്ച് പൊരട്ടുകാന്നൊള്ളതാണ് പിന്നെ മഞ്ഞൾ കളർത്തിയ വെള്ളം അതായത് ആ വ്യക്തിക്ക് കൊടുക്കുക അതായത് മഞ്ഞൾ പൊടിയില് വിഷാംശത്തെ നീക്കാനുള്ള മഞ്ഞൾ പൊടിക്ക് വിഷാംശത്തെ നീക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണല്ലോ പറയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യുന്നത് ഇത് കടിച്ച ഉടനെ തന്നെ ചെയ്യുന്നത് ഈ മഞ്ഞളും കുറച്ച് തുളസി ഇലയും കൂടെ അരച്ച് ആ കടിയേറ്റ ഭാഗത്ത് പെര പുരട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മള് ചെയുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി ധാരാളം വെള്ളം കുടിക്കും ആ വ്യക്തിക്ക് കടിയേറ്റ വ്യക്തിക്ക് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക അയാളെ അധികം ഉറങ്ങാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക കാരണം ആ വിഷാംശം നമ്മുടെ ശരീരത്തില് പടരാതിരിക്കാനായിട്ട് നമ്മള് കുറച്ച് നേരം അയാളെ നിരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മള് സാധാരണയായിട്ട് ഞങ്ങള് ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്